ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാന് ആദ്യമായി പാചകം ചെയ്തത് സ്കൂൾ വിട്ടു വന്ന സമയത്ത് വൈകുന്നേരം ഒരു അമ്മ ലഘുഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയെ സഹായിച്ചു കൊണ്ടാണ് ഞാന് തുടങ്ങിയത് അതുപോലെ അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം അതെല്ലാം ഓര്ത്തെടുക്കുമ്പോള് എനിക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ ഇനിയും ഭയങ്കര ഓര്മ്മകളും ഉള്ള കാര്യങ്ങളുമാണ് ഞാനാദ്യം കായബജി എന്നുള്ള ഒരു ലഘു എണ്ണ കടിയാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അമ്മയെ പോയി സഹായിച്ചു കൊണ്ടാണ് ഞന് ആദ്യം പാചകം തുടങ്ങിയത് അതിനുശേഷം ഞാൻ അമ്മയില്ലാതെ ചെറിയ രീതിയിലുള്ള ലഘുഭക്ഷണങ്ങള് ഉണ്ടാക്കാന് പഠിക്കുകയും അതെല്ലാം ഞാൻ ഉണ്ടാക്കാന് ശ്രമിക്കുകയും ചെയ്തു നമ്മളാദ്യം ചെയ്യുമ്പോള് എന്തും തെറ്റും എന്നറിയാം അതിനുശേഷം കാത്ത് ദിവസങ്ങള്ക്കു ശേഷമാണ് അത് സംഭവം ഉണ്ടാക്കുകയും അതെല്ലാം നല്ലരീതിയില് പാചകം ചെയ്യുകയും ചെയ്തത് എനിക്കിപ്പോൾ ലഘുഭക്ഷണങ്ങളില് ഏറെക്കുറെ കുറച്ചു എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാന് അറിയുകയും അതെല്ലാം ഞാന് ചെയ്യാറുമുണ്ട് ഒഴിവു സമയങ്ങളില്